നമ്മളിപ്പം കൂടുതലും ഓൺലൈൻ ഷോപ്പിങ്ങാണ് ചെയ്യുന്നത് അതേസമയം നമ്മുടെ ഗ്രാമപ്രദേശം വച്ച് നോക്കുമ്പം കൂടുതലും ഗ്രാമപ്രദേശങ്ങളിലുള്ളവർ നല്ല വസ്തുക്കൾ മേടിച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് അതിൻ്റേതായ മാറ്റങ്ങൾ അവരിൽ കാണുന്നുണ്ട് ഇപ്പോൾ പഞ്ചസാര അങ്ങനെ ഓയിൽ അതൊക്കെ വച്ചു നോക്കുകയാണെങ്കിൽ ഓയിൽസൊക്കെ ഇവിടെയുള്ള മില്ലുകളിൽ നിന്നുതന്നെ മേടിക്കുന്നതുകൊണ്ട് അവർക്ക് അതിൻ്റേതായ മാറ്റങ്ങളുണ്ട് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും അങ്ങനെ വരത്തില്ല അതുപോലെത്തന്നെ നമ്മൾ ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ റേറ്റ് കുറവുണ്ടെന്ന് മാത്രമേയുള്ളൂ ക്വാളിറ്റി വളരെ കുറവാണ് ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ പക്ക നല്ലതാണ് അതുപോലെത്തന്നെ ഓൺലൈനിൽ നിന്ന് നമ്മൾ ഓയിലും കാര്യങ്ങളൊക്കെ മേടിക്കുകയാണെങ്കിൽ ക്യാൻ്റിൽസ് അതുപോലത്തെ കുറേ സംഭവങ്ങൾ ഉരുക്കിച്ചേർക്കുക അങ്ങനത്തെ കുറെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അതുകൊണ്ട് നമ്മൾ ഓൺലൈനായിട്ട് ഓൺലൈനായിട്ട് ഷോപ്പിങ്ങ് ചെയ്യുന്നതിനും നല്ലത് നമ്മൾ ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നോ മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ അത് നല്ല നല്ലൊരു ഇതാണ് ഓൺലൈനായിട്ട് മേടിക്കുകയാണെങ്കിൽ വിലക്കുറവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ വളരെ വളരെ ബേഡ് ആണ്